ആ അതെ മേഡം പറഞ്ഞോളൂ ആ ആയിക്കോട്ടെ പറഞ്ഞോളു ആ ഓക്കെ മേഡം എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാനുള്ള പ്ലാനിലാണോ ആ ഒക്കെ ഈ മാഡത്തിൻ്റെ ഈ നമ്പറിൽ വാട്ട്സപ്പ് ഉള്ളതാണോ ആ ഓക്കെ മേഡം നമ്മുടെ പുതിയ കളക്ഷൻസൊക്കെ ഞാൻ ഫോട്ടോ വാട്ട്സപ്പ് ചെയ്തേക്കാം മേഡം അപ്പം എന്തൊക്കെ നോക്കാനാണ് പ്ലാൻ ആ ഓക്കെ മേഡം സെറ്റ് സാരി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ധാവണി ഉണ്ട് മേഡം ആ എല്ലാം ഉണ്ട് ഈ പറഞ്ഞ ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് മേഡം റേറ്റിപ്പോൾ സാരിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അറുനൂറ് തൊട്ട് സ്റ്റാർട്ടിങ്ങാണ് സെറ്റ് സാരിയൊക്കെ ധാവണിക്ക് ഒരു ആയിരത്തി എണ്ണൂറ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഓഫറ് നമുക്ക് ഡിസ്കൗണ്ട് സംസാരിക്കാം മേഡം വന്നുകഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടലായിട്ട് വരുന്ന പേയ്മെൻറ്റീന്ന് എന്തെങ്കിലൊക്കെ ഡിസ്കൗണ്ട് തരാം അങ്ങനെയാണിപ്പോൾ ആ ഓക്കേ ഓക്കേ അപ്പോൾ മേഡം ഡയറക്റ്റ് വരുമോ ഇങ്ങോട്ട് വരുവായിരുക്കും അല്ലെ ആ ഓക്കേ ഓക്കേ മേഡം എന്നാൽ കറക്റ്റ് ചൂസ് ചെയ്തിട്ട് ആ ഓക്കെ മേഡം അപ്പോൾ എന്നത്തേക്കാണ് വരുക ആ ഓക്കെ അങ്ങനാണെങ്കിൽ മേഡം ചൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ കാരണം നമുക്കിങ്ങനെ മാറ്റിവെക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ കാണിക്കേണ്ടതാണല്ലോ അപ്പോൾ നമ്മൾ നിങ്ങൾ ചൂസ് ചെയ്ത സാധനം മാറ്റിവെക്കുമ്പോൾ ഇല്ല നമുക്ക് എന്ത് ഇപ്പോൾ വരുന്നേൻറ്റൊരു ടെൻ പേഴ്സിൻറ്റേജോ ട്വൻറ്റി പേഴ്സിൻറ്റേജോ ചെയ്താൽ മതി ആ ഓക്കേ മേഡം ആ ഓക്കെ മേഡത്തിന് ഞാനിപ്പോൾ നോക്കീട്ട് മേഡം പറഞ്ഞ ഐറ്റംസിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെ ഫോട്ടോ അയച്ച് തരാം ഇതിനെന്തേലും കളറോ എന്തേലും കാര്യം മേഡം നോക്കുന്നുണ്ടോ ഗോൾഡൻ ലെ ആ ഓക്കെ ആ ഓക്കേ ഓക്കേ മേഡം ഞാൻ എന്തായാലും സെറ്റ് ആക്കീട്ട് അയച്ചുതരാം